ഞാൻ രണ്ടായിരത്തിപ്പതിനെട്ട് മുതലാണ് ഗെയിമിങ്ങിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ മെയിൻലി മൊബൈൽ ഗെയിംസാണ് നോക്കാറുള്ളത് അതിൽതന്നെ നമ്മുടെ ഓൺലൈൻ ഗെയിംസ് രണ്ടായിരത്തിപ്പതിനെട്ടിന് മുന്നേ ഞാൻ ശരിക്കും ഓഫ്ലൈൻ ഗെയിംസ് മൊബൈലിലുള്ള ഓഫ്ലൈൻ ഗെയിംസ് കളിച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ കമ്പ്യൂട്ടറിലുള്ളതും മറ്റുള്ള ഓഫ്ലൈൻ ഗെയിംസ് കളിച്ചിട്ടുണ്ട് അതിന് മുന്നേ അതായത് മറ്റ് ചെറിയ ചെറിയ ഗെയിംസ് അതായത് ഷേഡോ ഫൈറ്റ് മിനി മിൽഷ്യ അങ്ങനെ പിന്നെ വൈസ് സിറ്റി അങ്ങനെ കുറെ കുറച്ച് കുറച്ച് ഗെയിംസ് കളിച്ചിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തിപ്പതിനെട്ടിന് ശേഷം ഓൺലൈൻ ഗെയിമിംഗ് കുറച്ചും കൂടിയൊന്ന് ഡെവലപ്പ്ഡായി അതെപ്പോഴോ ഞാൻ ക്ലാഷ് ഓഫ് ക്ളൈൻസ് പബ്ജി ഫ്രീ ഫയർ കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനെ കുറേ ഗെയിമിനെപ്പറ്റി അറിഞ്ഞത് അത് ഞാൻ കളിച്ചിട്ടുണ്ട് അതെല്ലാം ഭയങ്കര രസമാണ് രണ്ടായിരത്തിപ്പത്തൊൻപത് അവസാനത്തോടെ കൊറോണ കാരണം ഇവിടെ ലോക്ക് ഡൗൺ തുടങ്ങി അതിനു ശേഷം ഇങ്ങനൊരു മൊബൈൽ ഗെയിമിങ്ങ് ഭയങ്കരയിട്ട് സജീവമാവുകയായിരുന്നു എന്നാൽ ഈ കൊറോണ മാറിയതിന് ശേഷവും മൊബൈൽ ഗെയിമിങ്ങ് രംഗത്ത് വ്യവസായത്തിൽ ഒരു മാറ്റവും ഇത് വരെ വന്നട്ടില്ല അതായത് പുതിയ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഗെയിമൊ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പുതിയ ഇന്നോവേഷനോ ഒന്നും ഈ ഒരു ഗെയിമിങ്ങ് രംഗത്ത് വന്നട്ടില്ല ആ പക്ഷെ നമ്മുടെ പി സി ഐ ഗെയിമിങ്ങ് എടുക്കുമ്പോൾ രണ്ടായിരത്തി പണ്ടുതൊട്ടെ ഇതിൽ നല്ലൊരു ആ നമുക്ക് ഓരോ കാലഘട്ടത്തിനും പറയാൻ പാകത്തിനൊരു ഗെയിമുണ്ടാകും പണ്ട് മാറിയോ കാർട്ട് പിന്നെ ജി ടി എ പിന്നെ ഈ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പബ്ജി വന്നു ഈയൊരു കാലഘട്ടത്തി നല്ലൊരു ഇതാണ് ഗെയിമിങ്ങ് രംഗത്ത് വന്നിട്ടുള്ളത് വ്യവസായത്തിലാണെങ്കിലും വ്യവസായത്തിലവർക്ക് ആൻഡ്രോഡ് ന്യൂ കിട്ടുന്നതുകൊണ്ട് അതായത് കുട്ടികള് കളിക്കുന്ന സമയത്ത് അവർക്ക് പരസ്യം കൊടുക്കുമ്പോൾ ഈ പരസ്യത്തിലൂടെ അവർക്ക് എന്താ പൈസ കിട്ടും അത് വെച്ചിട്ട് അവര് ഈ കമ്പനികൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഗെയിം ഓഫ് ക്രാത്തോസ് ഒക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ നല്ലൊരു ഇതാണ് പിന്നെ ടോമ്പ് റൈഡറൊക്കെ നല്ലൊരു ഇതാണ് പിന്നെ ഈയൊരു ഇതിലാണ് നമ്മുടെ സോണിയുടെ പി എസ് ഫൈവ് ആൻ നിന്റന്റോ സ്വിച്ച് പിന്നെ എക്സ് ബോക്സ് ഇതൊക്കെ ഗെയിമിങ്ങ് രംഗത്ത് വലിയൊരു വ്യവസായം സൃഷ്ടിച്ചു കുറച്ച് കമ്പനികളാണ് ഇവര് പി സി എന്നുള്ളതിലും ഉപരി കൺസോൾ ഗെയിമിങ്ങിലേക്ക് നല്ലൊരു ഇത് നടത്തിയതാണ് അതൊക്കെ പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ ഈയൊരു അടുത്ത ഗെയിമിങ്ങ് രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ